കർഷകർക്ക് കൂടെ ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ അവരിഷ്ടപ്പെടുന്ന മറ്റു സംരംഭങ്ങൾ ഒത്തിരി ഇന്ന് നമ്മുടെ നാട്ടിൽ ലഭ്യമാണ് സസ്യങ്ങൾ വളർത്തിയും വളർത്തു മൃഗങ്ങളെ പരിപാലിച്ചും ഭക്ഷ്യ ഭക്ഷ്യേതര വിഭവങ്ങൾ ഉൽപാദിപ്പിക്കുന്ന പ്രക്രിയയുമാണ് കൃഷി കാർഷിക വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന മലയാളത്തിലെ ഒരു ആനുകാലിക പ്രസിദ്ധീകരണമാണ് കേരള കർഷകൻ ഒരു കർഷകൻ്റെ വീയർപ്പും അദ്ധ്വാനവുമാണ് കൃഷി എന്നത് കർഷകർക്ക് ലാഭം കൊയ്യാൻ പറ്റിയ അഞ്ച് കാർഷിക സംരംഭങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അതിൽ മികച്ച അഞ്ച് എണ്ണമാണ് കൂൺകൃഷി ഇതിന് മുടക്ക് മുതൽ പന്ത്രണ്ടായിരവും മാസ വരുമാനം നാല്പത്തി അയ്യായിരവുമാണ് പിന്നെയുള്ളത് ചീരകൃഷി അത് അൻപത് സെൻറ് സ്ഥലത്തു നിന്നും ലാഭം ഇരുപത്തി അയ്യായിരം രൂപയാണ് പപ്പായ കൃഷി മുടക്ക് മുതൽ ഒരു ലക്ഷവും വരുമാനം ആറ് ലക്ഷവുമാണ് അടുത്തത് പ്രശസ്തമായ തേനീച്ച വളർത്തലാണ് അതിൻ്റെ മുടക്കു മുതൽ എഴുപത്തി അയ്യായിരവും വാർഷിക വരുമാനം രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരവുമാണ് പിന്നെയുള്ളത് പയർ കൃഷിയാണ് ഇവയെല്ലാം ഒരു കർഷകന് വളരെ ലാഭം കൊയ്യുന്നതും മികച്ച രീതിയിൽ പ്രവർത്തിക്കാവുന്നതുമായിട്ടുള്ള കാർഷിക ഇനത്തിൽ പെട്ടവയാണ് നമ്മുടെ നാട്ടിൽ ഇന്നും ഒത്തിരി കർഷകർ വിയർപ്പും അദ്ധ്വാനവും നൽകി കൃഷി ചെയ്യുന്നുണ്ട് എന്നാൽ അതിൻ്റെ ലാഭവും ഒത്തിരി താഴെയാണ്